എസ് മാഡം പറയൂ തക്കാളി ഒരു കിലോ ഇരുപത്തഞ്ചാണ് ഉള്ളി അമ്പത് രൂപയാണ് പച്ചമുളക്ക് ഇരുന്നൂറിന് ഇരുന്നൂറ് രൂപ തന്നെ അ ഫ്രഷാണ് ഇപ്പോൾ വന്നതാണ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വന്തമായിട്ട് അതെ ജൈവവളം തന്നെ

ഇത് മാനന്തവാടി എരുമത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത് വീട് എന്ന് വെച്ചാൽ വീടും കടയുംകൂടി ഒന്നിച്ചാണ് നിങ്ങള് ഹോം ഡെലിവറിയാണോ അതോ ഇങ്ങോട്ട് വരുവോ ഹോം ഡെലിവറി എന്ന് വെച്ചാൽ വണ്ടി ചാർജ് വരും എവിടെയാണ് സ്ഥലം എവിടെയാണ് മാനന്തവാടി എവിടെയായിട്ടാണെന്ന് പറയുകയാണെങ്കില് ടൗണിൽ തന്നെ അ അങ്ങനെ ആണെങ്കിൽ ഒരു അമ്പത് രൂപയെ വരികയുള്ളു കേട്ടോ ഡെലിവറി ചാർജ്

എന്തൊക്കെ സാധനമാണ് വേണ്ടത് തക്കാളി എത്രയാണ്

അ വെണ്ടയ്ക്ക ഉണ്ട് അ വെണ്ടയ്ക്ക ഒരു കിലോ വെണ്ടയ്ക്കക്ക് ഇരുനൂറ്

ഫ്രഷ് സാധനമാണ് അ എന്നാല് അ ഇരുനൂറ് രൂപ അതിന്റെ അപ്പുറം കുറയില്ല ജൈവവളം ജൈവവളം മാത്രമാണ് ഇന്ന് എന്നാൽ അരക്കിലോ ഓക്കേ പിന്നെ കിഴങ്ങുണ്ട് കിഴങ്ങിന് എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു കിലോ

അര ഓക്കെ അ തക്കാളി തക്കാളി ഇരുപത് ഓക്കെ ഓക്കെ അതൊന്ന് ഓക്കെ ഇത് വിളിച്ചാൽ ഈ നമ്പറില് വിളിച്ചാൽ എടുക്കുകയില്ലേ ഓക്കെ ശരി കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം അപ്പോൾ ലൊക്കേഷൻ ഇട്ടാൽ മതി